ആ ഹാ ആ അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇനിയിപ്പം ഞാൻ നിങ്ങളിപ്പോൾ എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് അങ്ങ അപ്പോൾ അവിടെയാണെങ്കിൽ ഞങ്ങൾ എനാൽ അത് ഇപ്പം അതിപ്പം ന നഷ്ടപ്പെട്ട് പോയില്ലേ അപ്പോൾ പിന്നെ വേണമെങ്കിൽ ഞങ്ങള് പിന്നെ വേറെ ഒക്കു അറക്കുമ്പോൾ പുതിയത് കൊണ്ട് തരാം അന്നെങ്കിൽ ബീഫ് വേണമെങ്കിൽ പുതിയത് കൊണ്ട് തരാം എന്തൊ അത് മതിയോ അപ്പോൾ അതിൻ്റെ പൈസ അങ്ങ് അതുംകൂടെ ഇടാക്കുമല്ലോ എന്തൊ ആ അതല്ല നമ്മളിപ്പം ഒരു കൊണ്ടുവരുമ്പം അതിൻ്റെ കുറച്ചൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതൊക്കെ ആക്കണമല്ലൊ അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ കച്ചവടം മുന്നോട്ട് പോകേണ്ടതല്ലെ അല്ലെങ്കിൽ പാടല്ലേ അപ്പം നമ്മളെല്ലാവർക്കും കൊടുക്കുന്നത് അല്ലെ അപ്പോൾ ഇച്ചിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇതാവും അങ്ങ് ആ വേണം ആ ആ ഒത്തിരിയങ്ങായി പോ അവൻ

ആണോ ആ ഹാ ആ കുഴപ്പമില്ല അപ്പം ഇനി ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് ഇപ്പോൾ ചെയ്യാന് പറ്റുന്ന അതേ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഇപ്പോൾ അതിൻ്റെ പുതിയത് ഇപ്പം നമ്മള് പുതിയ ഒരെണ്ണത്തിന് വി എടുക്കും കഷ്ണം ടാക്സിയിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പം നമ്മള് ആദ്യത്തേത് മുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു പീസ് അങ്ങ് തന്നേക്കാം അങ്ങ് അതായത് നല്ല ഇതായിട്ടുള്ള കഷ്ണം ചേർത്തുള്ള അങ്ങ് തന്നേക്കാം അങ്ങ് ആ തരാം തരാം അത് തരാം ആ ഇനി ഇപ്പം ഇന്ന് ആ വെള്ളിയായി ഇന്ന് ശനിയാഴ്ചയല്ലേ അപ്പം നാളത്തേക്ക് നാളെ രാവിലെ പോര് നാളെ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങു പോര് ആ ആ ആ ആ പള്ളിയിൽ പോയിട്ടേ ആ കുഴപ്പമില്ല വീട്ടിലാരെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ പിള്ളേര് ഒരുമാതിരി മുതിർന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ വിടുവാണെങ്കിൽ ഇന്ന കടയാണെന്നും പറഞ്ഞ് വിട്ടാൽ മതി അപ്പം നമുക്ക് സാധനം അവിടെ എത്തിക്കുകയും ചെയ്യാം അങ്ങ് ആ പൈസ വേണ്ട പൈസ വേണ്ട അപ്പം നമ്മൾ ആ കാര്യത്തിൽ അങ്ങ് ഇതാക്കിക്കൊള്ളാം നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് പോയ തെറ്റല്ലേ അപ്പം നമ്മൾ ഇതാക്കിക്കൊള്ളാം അങ്ങ് ആ ഉറപ്പായിട്ട് ഞങ്ങള് ശ്രദ്ധിച്ചോളാം അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന് പോയ തെറ്റല്ലേ അപ്പം ഞങ്ങൾ അത് ഉറപ്പായിട്ട് അത് ശരി ചെയ്യേണ്ടതാണ് അങ്ങ് പക്ഷെ വേറാരും അങ്ങനെ കംപ്ലയിൻറ്റുവായിട്ട് വന്നില്ല അപ്പം നമുക്ക് ഓർത്ത് പ്രശ്നിമില്ലല്ലോ അങ്ങ് ആ

ആ ഹാ അല്ല ആ വന്ന ആള് പറഞ്ഞു ആ അവർക്ക് വിരുന്ന് ആരാണ്ട് അപ്പം അറിയാവുന്നത് കൊണ്ട് നമ്മളോട് പറഞ്ഞ് വിരുന്നക്കാര് പറഞ്ഞു ഞാ പറഞ്ഞതിച്ചിരി ഒരിതുണ്ട് അപ്പൊ പറയും പുള്ളി പറഞ്ഞു കൊഴപ്പൊ ഇല്ല അത് സാരില്ലെന്നൊക്കെ പറഞ്ഞപ്പൊ നമ്മളങ്ങ് പിന്നങ്ങ് ചെയ്തയങ്ങ് അപ്പൊ പിന്നെ നമ്മളെയും തെറ്റുണ്ട് അപ്പോൾ ഇച്ചിരി ഒന്ന് ഇത് നമ്മളത് ചെയ്ത് പോയതാണ് അങ്ങ് അപ്പം വിരുന്നക്കാര് വരുമ്പോൾ നമുക്ക് പെട്ടെന്നങ്ങ് സാധനം അങ്ങ് കൊടുക്കുക എന്നതേ ഉള്ളൂ അപ്പം ഞങ്ങൾ ആകുന്നത് പറഞ്ഞ് ഇച്ചിരി ഒരിതുണ്ട് പിന്നെ കുഴപ്പം ഇല്ലെന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല എന്തായാലും ഇനി ഇപ്പോൾ ഞങ്ങള് അടുത്തതിന് നാളെ ഞായറാഴ്ച്ച വിട്ടാൽ മതി അപ്പോൾ അതും കൂടെ ഓക്കെയാക്കി ഞങ്ങള് തന്നേക്കാം അങ്ങ് ആ ഓക്കെ ആ